ഞാൻ യാത്ര ചെയ്യാൻ വളരെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് എൻ്റെ യാത്രകൾ മിക്കതും ഒറ്റക്കാണ് ഒറ്റക്ക് പോകുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനവും ഒരു സ്വകാര്യതയുമെല്ലാം ഞാൻ വളരെ അധികം ഇഷ്ടപ്പെടുന്നു യാത്രകൾ മിക്കപ്പോഴും മലനിരകളിലേയ്ക്കായിരിക്കും നാലും അഞ്ചും കിലോമീറ്ററുകൾ ട്രക്ക് ചെയ്ത് ആ മലയുടെ മുകളിലെത്തി കഴിയുമ്പോൾ താഴത്തോട്ട് നോക്കുമ്പോൾ കിട്ടുന്ന ഒരു വ്യൂ ഉണ്ട് ആ വ്യൂവിനും ഫീലിനും വേണ്ടി മാത്രം എത്ര ദൂരം വേണേലും താണ്ടാൻ ഞാൻ തയ്യാറുമാണ് കോടയും മഞ്ഞും എല്ലാം എനിക്ക് വളരെ അധികം ഇഷ്ടമാണ് അതുകൊണ്ടു തന്നെ ഒട്ടുമിക്ക മഴ സമയത്തും മൺസൂൺ സമയത്തെല്ലാം യാത്രകൾ പോവാറുണ്ട് വാഗമൺ മൂന്നാർ എന്ന സ്ഥലങ്ങളിലെല്ലാം എൻ്റെ വളരെ പ്രിയപ്പെട്ട ഇടങ്ങളാണ് ഈ അടുത്ത കാലത്ത് ഞാൻ ഡൽഹി ഒരു യു ദൂര യാത്ര പോയത് ഡൽഹിക്കായിരുന്നു ഡൽഹിയിലേക്ക് പോയപ്പം ലോക വിസ്മയങ്ങളിൽ ഒന്നായ താജ്മഹൽ കുത്തബ് മിനാർ റെഡ് ഫോട്ട് ആഗ്രാ ഫോട്ട് അങ്ങനെ ഇന്ത്യാ ഗേറ്റ് അങ്ങനെ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ പറ്റി പറഞ്ഞ് കണ്ടുമുള്ള അറിവാരുന്നു താജ്മഹലിനെ പറ്റി ഉണ്ടായിരുന്നുള്ളൂ അത് നേരിട്ടൊന്ന് കണ്ടപ്പോൾ കിട്ടിയ അനുഭൂതി വേറെ തന്നെ ആയിരുന്നു താജ്മഹലിൻ്റെ കവാടത്തിൽ നിന്ന് ഒരു ബ്ലെറി വിഷൻ കൺ ബ്ലെറി വിഷനോടെ കണ്ണടച്ച് കവാടത്തിന് അകത്തേക്ക് കടന്നപ്പം കണ്ണ് തുറന്നപ്പം കിട്ടിയ ഒരനുഭവം ആ അനുഭവം ലോകത്തിൽ വേറൊന്നിനും തരാൻ സാധിക്കില്ല ഒരു രോമാഞ്ചം വരുന്ന ഒരു സിറ്റുവേഷൻ ഒരു അവസ്ഥ അല്ലെങ്കിൽ സിറ്റുവേഷൻ തന്നെ ആയിരുന്നു അത്